ഇന്നത്തെ ഈ ലോകത്ത് ഏകദേശം ഭൂരിഭാഗം മനുഷ്യരും ഉപയോഗിക്കുന്നത് ഇരുചക്രവാഹനമാണ് അത് മിക്ക ഉള്ളവരും പ്രായഭേദമെന്യേ അതായത് യുവതലമുറകളാണേലും കുഞ്ഞുങ്ങളായാലും എല്ലാവരും ഉപയോഗിക്കുന്നത് ഇരുചക്രവാഹനമാണ് അത് ഇന്നത്തെ ഈ ലോകത്ത് ഒരുപാടധികം അപകടത്തിന് കാരണമായിത്തീരുന്നു നിരവധി ഗതാഗത കുരുക്കുകളും ഗതാഗത അപകടങ്ങളും ലോകത്തുണ്ടാകുന്നു അതിലും പ്രധാനമായും ഞാനൊരു വാഹനം ഓടിക്കുന്നത് ഇരുചക്ര വാഹനമോടിക്കുന്ന ആളാണ് ഞാന് പലപ്പൊഴും ഞാൻ അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനമായ ഒരു പ്രശ്നം എന്നുള്ളത് റോഡുകളിൽ ഉള്ള അമിത വേഗതയാണ് അത് ഈ പല വാഹനങ്ങളും വലിയ വലിയ ബസ്സുകള് മിക്കതും കെ എസ് ആർ റ്റി സി പോലുള്ള വലിയ വലിയ ട്രാന്സ്പോര്ട്ടിന്റെ ബസ്സുകളും ലോറികളും ഒക്കെ അവരുടെ അവരുടെ വേഗപ്പാച്ചിൽ അവരുടെ അമിത വേഗപ്പാച്ചില് ആണ് നമ്മളെ അപകടങ്ങളെ അവിടെ യാത്ര വളരെ നമുക്ക് അധികം വളരെ അധികം ഭയം നമ്മുടെ ഉള്ളിലൊള്ള ഉളവാക്കി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങള് പ്രധാനമായും സഞ്ചരിക്കുമ്പം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനമായ വിഷയമാണ് ലൈറ്റിന്റെ പ്രശ്നം പല ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റില്ല അതോടൊപ്പം തന്നെ പല വാ പല സമയങ്ങളിലും ഈ വാഹനം എതിരേ വരുന്ന വാഹനങ്ങള് അവരുടെ ലൈറ്റുകൾ ഡിമ്മാക്കാതെ ബ്രൈറ്റാക്കിക്കൊണ്ട് വരുന്ന അവസ്ഥ അപ്പോൾ ഈ വാ ഇരുചക്ര വാഹകരെന്ന നിലയില് എനിക്ക് പലപ്പഴും ഫേസ് ചെയ്യേണ്ടി വന്ന പല സമയങ്ങളിലും എനിക്ക് റോഡ് മുമ്പിലത്തെ എനിക്ക് മുൻപിലുള്ള റോഡ് പലപ്പഴും കാണാന് പറ്റാതെ വന്നിട്ടുണ്ട് കാരണം ഈ എതിരേ വരുന്ന വണ്ടികളെ ഈ ലൈറ്റ് കാരണം ലൈറ്റ് മൂലം അതെന്റെ കണ്ണിലേയ്ക്ക് പതിച്ച് എനിക്ക് മുമ്പൊ മുമ്പ് കാണാന് കഴിയാത്ത രീതിയിലെനിക്ക് വാ വരേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായി പുതിയ ഹ പുതിയ ഈ കമ്പിനികളിലേക്ക് ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾ അവ അതിന്റെ എല് ഈ ഡി ലൈറ്റ്കള് ഡി ആര് എല് പോലുള്ള വലിയ വലിയ എല് ഈ ഡി ഹാലജൻ ലൈറ്റുകളാക്കിയിട്ട് ചേ അതിനകത്ത് വണ്ടിക്കാത്തിരിക്കുന്നത് ആ ലൈറ്റുകൾ നമ്മുടെ കണ്ണുകളില് അതവര് ബ്രൈറ്റടിക്ക്മ്പഴത്തേന് അതൊരു ഡിമ്മിട്ടാൽ പോലും നല്ല പ്രകാശം അ ലഭിക്കുന്ന ലൈറ്റ് ബ്രൈറ്റൊക്കെ ഇട്ടോണ്ട് അവര് വരുമ്പം വളവ് വളവുകളിലൊക്കേ വ ബ്രൈറ്റിട്ടോണ്ട് വരുമ്പോൾ പല സമയങ്ങളിലും നമ്മളിപ്പോൾ റോഡ് പോലും എനിക്ക് കാണാന് കഴിയാത്ത രീതിയിൽ ഞാന് വണ്ടി ചവിട്ടി നിർത്തിയിട്ടുണ്ട് എനിക്ക് എങ്ങോട്ട് പോകണവെന്ന് മുമ്പൊരിക്കെ കാണാന് പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അതൊരു പ്രധാനമായി വലിയൊരു അപകടത്തിന് കാരണമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് ഈ റോഡുകളിലുള്ള ലൈറ്റുകളുടെ ഈ എതിരേ വരുന്ന വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റിന്റെ പ്രശ്നമെന്നുള്ളത് അത് വളരെയധികം പലര്ക്കും അതുപോലെ രണ്ട് ഇപ്പം വൈറ്റ് ബൈക്ക് യാത്രക്കാരനെന്ന നിലയില് എനിക്ക് എവിടെങ്കിലും സൈഡില് ഒതുക്കി നിര്ത്താം പക്ഷേ കാറ് കാറ് യാത്രക്കാരിപ്പം നാല് ചക്രമുള്ള വാഹനമൊക്കെ ഓടിച്ചോണ്ട് വരുന്ന ആളാണെങ്കില് ആള് ചിലപ്പം നേരിട്ടൊരു അപകടം തന്നെ നേരിട്ട് ഇ തമ്മില് വാഹനങ്ങള് തമ്മില് ഏറ്റ്മുട്ടാന് വളരേയധികം ചാന്സ് ഉള്ളൊരു കാര്യം തന്നെയാണ് ബൈക്ക് യാത്രക്കാരനെന്നുള്ള നിലയിൽ നമുക്ക് പലപ്പഴും ഹെല്മെറ്റും ഇരിക്കും അതിനോടൊപ്പം തന്നെ ഈ ലൈറ്റും കൂടെ അങ്ങിടുമ്പോൾ പലതും നമുക്ക് മനസിലാകാന് അപകടകരമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണ്ടി വരും അപ്പം അത്കൊണ്ട് ലൈറ്റ് വളരെയധികം വേദന ഉളവാക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിരത്തുകളിൽ വെളിച്ചങ്ങളില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളും ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളില് മാത്രം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉള്ളത് എന്നാല് ചില ഇരുട്ടുള്ള പ്രദേശങ്ങളില് ചെറിയ ഊട് വഴികളിലൊക്കെ കേറി ചെല്ലുമ്പോൾ അവിടെ പല ഭാഗങ്ങളിലും വെളിച്ചങ്ങള് വെളിച്ചത്തിന്റെ അംശം പോലും ഇല്ല അബദ്ധവശാൽ നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റൊന്ന് ഓഫായി പോയിക്കഴിഞ്ഞാല് അല്ലെങ്കില് നമ്മുടെ വാഹനത്തെ ലൈറ്റോണായില്ലെങ്കില് മുമ്പോട്ട് പോകാന് ഇല്ല വളരെയധികം ബുദ്ധിമുട്ടേറിയ സമയമാണ് പ്രത്യേകിച്ച് ആ ആ ഒരു വഴികളില് ഈ മണ്ണിടിച്ചിലില് അല്ലെങ്കില് വന്യമൃഗങ്ങളുടെ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് നേരിടാന് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിക്ക റോഡുകളുടെ നിരത്തുകളിലും ഈ വെളിച്ചങ്ങളുടെ കുറവ് ബാധിക്കും വളരെയധികം അപകടത്തിന് കാരണമാകും ഇത് അതോടൊപ്പം തന്നെ തന്നെ ഗതാഗത കുരുക്ക് ഇന്നത്തെ വര്ഷത്തിലൊരു പത്ത് ഇരുപത് വര്ഷം ബാക്കിലോട്ടെടുക്കുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന ഓരോ ഈ നമ്മുടെ നിരത്തിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനേക്കാള് നാല് അഞ്ച് ഇരട്ടി വാഹനങ്ങളാണ് ഇപ്പോള് ഈ ഈ ദിവസങ്ങളില് ഈ നിരത്തുകളിൽ ഉള്ളത് കാരണം വാഹനങ്ങളുടെ എണ്ണം വര്ദ്ധിച്ചു എല്ലാ വീടുകളിലും ഒന്നില് കൂടുതല് വാഹനങ്ങളായി എന്നാല് അന്നുള്ള റോഡ് തന്നാണ് ഇപ്പഴും ഉള്ളത് റോഡിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല റോഡിന് വീതി കൂടുകയാവട്ടെ റോഡിന് വളവുകളൊക്കെ നിവരുകയാകട്ടെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതെ ഇപ്പഴും പറേ പഴയ റോഡുകൾ തന്നെയാണ് പ്രധാനമായും ഈ നഗരപദേശങ്ങളിലൊക്കെ വരുമ്പോൾ തന്നെ കടകള് മൂലം വഴിയോര കടകള് അതൊക്കെ മൂലം പല സ്ഥലങ്ങളിലും ഗതാഗത കുരുക്ക് വളരെയധികം ഭാഗമായി കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഇന്നെക്കെയാ ഈ ഇപ്പോഴത്തെ സാഹ ഈ സമയങ്ങളിലാണെങ്കില് വളരെയധികം വലിയ വലിയ വാഹനങ്ങളാണിന്ന് നിരത്തിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലോറികളാവട്ടെ വലിയ വലിയ വലിയ ബസ്സുകള് ഇതൊക്കെ ഓരോ ഒര് നഗരത്തില് പ്രധാനമായൊരു നഗരത്തില് വന്നൊന്ന് തിരിഞ്ഞ് തിരിച്ചെട്ക്ക് ഒന്ന് യൂട്ടേണ് തിരിഞ്ഞൊന്ന് പോകണമെങ്കില് എങ്ങനെ പോയാലും അര മണിക്കൂറില് കൂടുതല് സമയം പിടിക്കുന്നു കാരണം അപ്പോൾ ആ അരമണിക്കൂറ് കൊണ്ടുതന്നെ ഏകദേശം മൂന്ന് നാല് കിലോമീറ്ററ് നീളെ നിൽക്കുന്ന ബ്ലോക്കാവുകയാണ് അത് ഈ ഒരു കാലഘട്ടത്തില് ഗതാഗത കുരുക്ക് വളരെയധികം പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങള്ക്ക് ചെയ്യാന് പറ്റുന്നതെന്ന് പറഞ്ഞാല് റോഡിന്റെ വീതികള് കൂട്ടുക അല്ലെങ്കില് അതിന് പകരം ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുക അതിലൂടെ ഒക്കെ ഒരുപാട് വാഹന കുരുക്കുകൾ ഗതാഗത കുരുക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമാണ് റോഡിലെ മോശമായ കുണ്ടും കുഴികളും എന്നുള്ളത് അതിലൂടെ ഒരുപാട് വാഹനം ബൈക്ക് യാത്രികരാണ് കുണ്ടും കുഴിയിലും വീഴ് വീണ് മരി ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുന്നത് അതിനകത്ത് ഒര് ബൈക്ക് യാത്രികരെ സംബന്ധിച്ച് പലപ്പഴും മഴ പെയ്ത് കിടക്കുന്ന സമയത്തില് റോഡേതാ വെള്ളമേതാ കുഴിയേതാന്നറിയാന് പറ്റാത്ത അവസരങ്ങളുണ്ട് ഈ റോഡാരിക്കും എന്ന് ഓര്ത്ത് വെള്ളത്തിക്കൂടി വണ്ടി കേറ്റിക്കൊണ്ട് പോവും ചിലപ്പം അത് അഗാധമായ പാതാളം പോലെ ഉള്ള കുഴിയാരിക്കും ആ കുഴിക്കകത്ത് വീണ് പലരും ഈ ലോകത്തുന്ന് മാറ്റപ്പെടാന് ഇടയായിട്ടുണ്ട് അത് അവരുടെ ഈ വാഹനം വാഹനം ഓടി വാഹനം ഓടിക്കുന്നത് വളരെയധികമായി റോഡിന്റെ ശോചനീയ അവസ്ഥ അവരുടെ ഈ വാ ഈ യാത്രയെത്തന്നെ വളരെയധികം നന്നായിട്ട് ബാധിക്കുന്നു പ്രത്യേകിച്ച് ഗര്ഭിണിയായവര് പ്രായമായവരെ കൊണ്ടൊക്കെ ഈ ഈ വഴികളിലൂടെ ഈ റോഡുകളിൽ പോകുമ്പളും വളരെയധികം ബുദ്ധിമുട്ടാണവരനുഭവിക്കുന്നത് അത് അധികാരികള്ക്കാര്ക്കും അത് മനസിലാകുന്നില്ല എന്നാല് ഒര് എലക്ഷന് ഒര് തെരഞ്ഞെടുപ്പ് വരുന്ന സമയം ആകുമ്പോള് മാത്രം ജനങ്ങളുടെ കണ്ണില് പൊടി ഇടുന്ന രീതിയിൽ മാത്രം വന്നിട്ട് കുണ്ടും കുഴികളും അടച്ചിട്ട് പോയിട്ട് കാര്യമില്ല അതൊരു പ്രധാനമായ ഒര് നല്ലൊരു മോസ്റ്റ് ഇമ്പോട്ടന്റ്റായിട്ടൊള്ള അല്ലെങ്കിൽ ഒരു പ്രധാനമായ ക്വാളിറ്റിലൊള്ള ഒരു പ്രോഡക്റ്റ്സ് വെച്ചല്ലാതൊരു ഒരിക്കലും ആ റോഡ് നിര്മ്മിക്കല് തട്ടിക്കൂട്ട് സംഭവങ്ങള് ചെയ്ത്കയാണ് വീണ്ടും വീണ്ടും അപകടം വര്ന്നെ ഇതിനും മുൻകരുതലെടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാല് പ്രധാനമായും ബൈക്ക് യാത്രികര് എപ്പോഴും ചെയ്യണ്ട ഒരു കാര്യമാണ് ഹെല്മെറ്റ് വെക്കുക എന്നുള്ളത് അത് നമ്മുടെ സുരക്ഷയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടൊരു അഭിവാജ്യഘടകമാ ഒന്നാന്നാ ഒന്ന് തന്നെയാണ് ഹെല്മെറ്റ് വെക്കുക എന്നുള്ളത് ബൈക്കോടിക്കുമ്പോളെപ്പളും ഹെല്മെറ്റ് വെയ്ക്കുക അതോടൊപ്പം തന്നെ കാറോടിക്കുമ്പം സീറ്റ് ബെല്റ്റ് ധരിക്കുക ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാ ഏറെ പ്രധാനപ്പെട്ട മുൻകരുതലുകളാണ് അതില് അതിലും ഉപരി വാഹനം ഓടിക്കുമ്പോള് മദ്യപിക്കാതിരിക്കുക ബോധ്യത്തോടെ ഉറക്കം വരാതെ ബോധ്യത്തോടെ വാഹനമോടിക്കാന് തയ്യാറെടുക്കുക ഉറക്കം വരുന്ന ക്ഷീണം അവസ്ഥയിലാണെങ്കിൽ വണ്ടി എവിടെങ്കിലും ഒതുക്കി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുക അല്പ്പനേരം വിശ്രമിച്ചതിന് ശേഷം വണ്ടി എടുക്കുക ഒരിക്കലും ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക ഇനി മണ്ണിടിച്ചിലുകൾ വന്യമൃഗങ്ങൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളെക്കെയാണെങ്കില് ഒരിക്കലും മണ്ണിടിച്ചിലുള്ള ഈ മലയോരപ്രദേശങ്ങളിലും മലയുടെ സൈഡിലൊന്നും വാഹനങ്ങള് കൊണ്ട് പാര്ക്ക് ചെയ്യാതെ എപ്പഴും ഒര് നിരപ്പായ സ്ഥലങ്ങളില് വാഹനങ്ങള് പാര്ക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വലിയ വലിയ മരങ്ങളുടെ ചുവട്ടിൽ പാ ഈ റോഡിന്റെ ഇരു വശങ്ങളിലും നില്ക്കുന്ന വലിയ വലിയ കൂറ്റന് മരങ്ങള് എപ്പോള് വേണമെങ്കിലും അപകട സാഹചര്യമുണ്ടാക്കുന്ന രീതിയിൽ നിൽക്കുന്ന മരങ്ങളുണ്ട് ആ മരങ്ങളൊക്കെ എത്ര വേഗം തന്നെ അത് അത് വലിയൊരു അപകടത്തിന് കാരണമായി തീരുന്നു ഒര് കാറ്റും മഴ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ ശിഖരങ്ങളൊടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും അത് ബൈക്ക് യാത്രക്കാരാവട്ടെ അല്ലെങ്കില് ഒര് കാല്നട യാത്രക്കാരാവട്ടെ അവരുടെ തല ദേഹത്ത് തലയില് വീണ് കഴിയുമ്പം അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു ഇതൊക്കെയും എന്നും അവരുടെ ജീവിതത്തിന് തന്നെയാണെങ്കിലും വലിയൊരു അപകടത്തിനു ആ വലിയൊരു കാരണമായി തീര്ന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പലപ്പൊഴും ഈ ഒരു ഈ ഒരു തരത്തിലുള്ള അപകടങ്ങളാണ് ഈ നമ്മുടെ നിരത്തുകളിൽ പതിയിരിക്കുന്ന ഇതിന് മനുഷ്യരെന്നുള്ള ഇതിന് കീഴിലും എടുക്കാനുള്ള മുൻകരുതലുകൾ വാഹനം ഓടിക്കുമ്പോള് പ്രോപ്പറായ രീതിയിൽ ഉള്ള റൂള്സ് പാലിക്കുക എന്നുള്ളതാണ് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഹെല്മെറ്റ് ധരിക്കുക സീറ്റ്ബെല്റ്റ് ധരിക്കുക അതോടൊപ്പം തന്നെ മദ്യപിക്കാതിരിക്കുക വാഹനങ്ങളെപ്പഴും അതാത് നിര അതാത് ലൈനിൽ കൂടി വാഹനം ഓടിക്കാന് ശ്രമിക്കുക മറ്റുള്ളവര്ക്ക് ആർക്കും ഒര് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയില് വാഹനമോടിക്കാന് ശ്രമിക്കുക ഇതിലൂടെ ഒക്കെ പല അപകടങ്ങളും നമുക്ക് നേരിടാൻ പല അപകടങ്ങളും നേരിടാനും നല്ലൊരു ജീവിതം നയിക്കാനും നമ്മളെ ഇടയാക്കി തീർക്കുന്നു